ഹലോ കേൾക്കുന്നുണ്ടോ അതെ അതെ ആ അതെ സുബൈറാണ് ആ സ്കൂൾ ആ സ്കൂളിന്ന് ആയിരിക്കുമല്ലേ ആ ഓക്കെ കുറവാണെന്നാണോ സബ്ജെക്ട് ഏത് സബ്ജക്റ്റായിരുന്നു കുറവ് ആ ഇപ്പം വീട്ടിലെത്തിയാൽ നന്നായിട്ട് പഠിക്കുന്നത് ആയിരുന്നു അതാ ചോദിച്ചത് വീട്ടിലേക്ക് വീട്ടിലേക്കാണോ

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ആ ഞാൻ ശ്രദ്ധിക്കാം പറയാം ബൈ

മാത്സ് ലെ ആ അതായത്

ആ ആ ഓക്കെ ഓക്കെ ഞാൻ വീട്ടിലെന്തായാലും ഫുള്ള്

ആ ആയിക്കോട്ടെ ഞാനെന്തായാലും പ്രോഗ്രസ്സ് കാർഡ് കൊടുത്തോ ഞാൻ വീട്ടില് ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ വീട്ടീന്ന് പഠിപ്പിച്ച് വിടണുണ്ട് മീറ്റിങ് ല്ലേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ